എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ടുകൾ അത് പഴയ കാലത്തെ പാട്ടുകളും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇന്നത്തെ കാലത്തെ പാട്ടുകളും നല്ല നമുക്ക് നല്ല ഉന്മേഷം തരുന്ന പാട്ടുകളൊക്കെ അതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെട്ട പാട്ടുകൾ പിന്നെ ചില പാട്ടുകളുണ്ട് ഒരുപാട് എന്താണ് നല്ല ഈണത്തിലും അതുപോല തന്നെ താളത്തിലും പാടുന്ന പാട്ടുകൾ ആ പാട്ടുകൾ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഞാൻ കൂടുതലും യാത്രകൾ ചെയ്യുമ്പോഴും ഞാൻ കേൾക്കുന്നത് പഴയ കാലത്തെ പാട്ടുകളൊക്കെയാണ് ആ പാട്ടുകളും കേട്ട് കാറ്റും കൊണ്ട് അല്ലെങ്കിൽ ആ കാറ്റിൻ്റെ ആ കാറ്റുകൾ നമ്മുടെ മുഖത്തടിച്ച് എൻ്റെ മുഖത്ത് അടിച്ചു എൻ്റെ മുടികൾ

എനിക്ക് ഒരുപാട് കേൾക്കാൻ താല്പര്യവും പഴയ ഗാനങ്ങളാണ് പിന്നെ ചില പാട്ടുകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതും ഇന്നത്തെ കാലത്ത് ഒരുപാട് പാട്ടുകളല്ല ചില പാട്ടുകൾ മാത്രമേ ഉള്ളു നമുക്ക് ഒരുപാട് കേൾക്കാൻ ഇഷ്ടപ്പെടത്തൊള്ളൂ അത് അങ്ങനത്തെ പാട്ടുകളൊക്കെ നമ്മൾ എത്ര കേട്ടാലും മതിയാവത്തില്ല കൂടുതലും ഭൂരിഭാഗവും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് അങ്ങനത്തെ പഴയ പഴയ കാലവുമായിട്ട് സാമ്യമുള്ള പാട്ടുകളൊക്കെയാണ് ഇഷ്ടം ഞാൻ കൂടുതലും ഞാൻ പാട്ട് കേൾക്കാറുള്ളത് യൂടൂബ് വഴിയും അതുപോലെ തന്നെ

പിന്നെ പിന്നെ പഴയ പാട്ടുകളിലും പുതിയ പാട്ടുകളുമെല്ലാം ഒന്ന് തന്നെ ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പാട്ട് കേൾക്കാനും ഒക്കെ ചെയ്യാനും പിന്നേ കെ എസ് ചിത്ര ചിത്ര ചിത്ര പാടുന്ന പാട്ടുകൾ യേശുദാസ് അവരുടെ പാട്ടുകൾ അതുപോലെ തന്നെ ജാനകി പാടുന്ന പാട്ട് പഴയ നമ്മുടെ ഏറ്റവും വലിയ ജാനകി പാടുന്ന പാട്ടുകൾ പിന്നെ അതുപോലെ തന്നെ ചില സിനിമകളിൽ മണി രത്നം സംവിധാനം ചെയ്ത ചില ചില എന്നല്ല എല്ലാ സിനിമകളുടെ പാട്ടുകളും നമുക്ക് ഒരുപാട് വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന പാട്ടുകളൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വലിയ വലിയ ഗായകന്മാർ പാടുന്ന പാട്ടുകൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് പിന്നെ എനിക്ക് ഒത്തിരി പാട്ടുകാരെ എനിക്ക് അറിയാം പക്ഷെ ഈ ചെയ്ത് പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മകൾ കിട്ടുന്നില്ല പക്ഷെ